ആ കോവിഡ് സമയത്ത് ഓൺലൈൻ വിാഭ്യാസം കുട്ടികളെ നല്ല രീതിയിൽ സ്വാധിനിച്ചിട്ടുണ്ട് കാരണം ഒറ്റപ്പെട്ടുപോയ സാഹചര്യമാണ് മിക്ക സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത് കാരണം കുട്ടി കുട്ടികളിൽ ഏറ്റവും മടിയന്മാരായ സമയമാണ് ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം കുട്ടികളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട സമയം കാരണം കുട്ടികൾ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്കും അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു അതുപോലെതന്നെ ജീവിതത്തിലവരെ കുറേ ബുദ്ധിമുട്ടുകളനുഭവിക്കുന്നു ഏകാഗ്രത കാരണം അവർക്ക് സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം മിണ്ടാതിരിക്കാൻ കാരണം അത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഫോൺ അതാണ് ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം കുട്ടികളിൽ പ്രശ്നം